ഞാനും മിരുവാണ് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കല് ചക്ക കൂട്ടാൻ വെക്കും പൂളുണ്ടാക്കും കാ വറുത്തതുണ്ടാക്കും ചേമ്പു കൂട്ടാനുണ്ടാക്കും മീൻ കറി ഉണ്ടാക്കും ചോറുണ്ടാക്കും പിന്നെ കോഴി എപ്പോളെങ്കിലുമാണ് കൊണ്ടുവരുന്നത് ഇടയ്ക്കൊക്കെ പൊരിക്കലുള്ളു പിന്നെ പോത്തിറച്ചി കൊണ്ടുവരും അത് വരട്ടും പിന്നെ മീനുണ്ടാക്കും മീൻ കൊണ്ട് കറി ഉണ്ടാക്കും മീൻ പൊരിച്ചും ഇഷ്ടമുള്ള കറി ഇല കറികളൊക്കെ ഉണ്ടാക്കും ഇല ഇലക്കറികള് നല്ലതാണ് പച്ചക്കറികൾ നല്ലതാണ് പച്ചക്കറി എല്ലാം ഉണ്ടാക്കും പയ മുരിങ്ങ ഉണ്ടാക്കും പയറ് വെക്കും

ഇതൊക്കെ നല്ലതാണ് ഇലക്കറികള് തിന്നുന്നത് നല്ലതാണ് പിന്നെ പച്ചക്കായയും വെക്കും പച്ചക്കായ പഴുത്തത് പുഴുങ്ങും